സ്വിമ്മിങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര യൂസ് ഫുള്ളാണ് അതായത് നമുക്കിപ്പം നമ്മുടെ മസിൽസിലായാലും അതേപോലെ തന്നെ കുറെ ഡിസീസിനെതിരെ നമ്മളെ പ്രിവൻറ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് സ്വിമ്മിങ്ങ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് നമുക്ക് ഹാർട്ട് ഹാർട്ടിനുണ്ടാകുന്ന ഡിസീസസ് അതുപോലെയുള്ള ഇതിനെല്ലാം എഗൈൻസ്റ് ആയിട്ട് എന്താണ് അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സ്വിമ്മിങ്ങ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സ്ലീപ്പ് കുറവുള്ള ആൾക്കാര് അതേപോലെ തന്നെ പല പല ഇഷ്യൂസ് ഉള്ളവർ ഇതൊക്കെ സ്വിമ്മിങ്ങിന് നല്ല ഓപ്ഷൻ തന്നെയാണ് അതേപോലെ അത് നമ്മുടെ ഒപ്പം എക്സസൈസ് ചെയ്യുന്നത് സ്വിമ്മിങ്ങ് എന്ന് പറയുന്നത് നല്ലൊര് എക്സസൈസാണ് നമ്മുടെ കാലറീസ് ബേൺ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മെൻറ്റൽ പ്രഷർ ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി സ്വിമ്മിങ്ങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രല്ല നമ്മൾ ഇമോഷണലി ഡിപ്രസ്സെഡ് ആയിരിക്കുകയാണെങ്കിലും ചിലപ്പം നമുക്ക് സ്വിമ്മിങ്ങ് നമ്മളുടെ നമ്മുടെ എന്താണ് മൂഡ് ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഒന്ന് ഇമോഷണലി നമ്മളെ ഇതാക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ സ്ട്രെസ് ഇപ്പം കുറയ്ക്കാനാണെങ്കിലും അതേപോലെ തന്നെ എല്ലാത്തിനായാലും സ്വിമ്മിങ്ങ് ഹെൽപ്പിങ് തന്നെയാണ് മെയ്നായിട്ട് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അഫൊർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് തന്നെയാണ് സ്വിമ്മിങ്ങ് അതായത് ഇപ്പം ഹൈലി റിച് ആകണമെന്നോ പുവർ ആകണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു സോഴ്സാണ് റിവർ സോ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ എക്സസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് സ്വിമ്മിങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫിസിക്കൽ എക്സസൈസും വച്ചും നോക്കുവാണെങ്കിൽ എല്ലാവര്ക്കും ഈക്വലി യൂസ് ഫുള്ളായിട്ടുള്ള അതായത് പൊർട്ടബിളും ആക്സിസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് സ്വിമ്മിങ്ങ് അതേപോലെ തന്നെ സ്വിമ്മിങ്ങ് എന്ന് പറയുമ്പം നമ്മുടെ റിസ്ക്സ് ഭയങ്കര കൂടുതൽ ആണ് കൂടുതലാണ് അതായത് ഇഞ്ച്വേഡ് ആകാനും അപകടത്തിപ്പെടാനും ഉള്ള സിറ്റുവേഷൻസ് കൂടുതലാണ്